വർഷങ്ങളായിട്ട് വയനാട് ജില്ല മാറിയത് എങ്ങനെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കൂടുതലായിട്ടും പുതിയ പുതിയ സംരഭങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത് ഇപ്പോൾ സംരഭങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോഴി ഫാം പിന്നെ ഡയറി ഫാമിങ് അങ്ങനെ പലതരം അതായത് ഇഞ്ചിക്കൃഷി അങ്ങനെ പലതരം ഫാമിങുകളും ഇഞ്ചിക്കൃഷികളും പലതും നെൽക്കൃഷി വാഴക്കൃഷി ഇങ്ങനെ ഒക്കെ കൊണ്ടുവന്നതുകൊണ്ട് ആൾക്കാർക്ക് സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുകയാണ് കാരണം ആദ്യമുള്ള ആൾക്കാരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യം ഒരു പത്ത് രൂപ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ആരുടെ അടുത്തും ഇല്ലാത്തൊരു അവസ്ഥയാണ് പക്ഷേ ഇപ്പം പത്ത് രൂപയെക്കാട്ടും കൂടുതൽ വലിയതായിട്ട് ഒരു ആയിരം രണ്ടായിരം രൂപയൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ആളുടെ എടുത്ത് ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരൊക്കെ ബിസിനസ്സ് പരമായിട്ട് എല്ലാം മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പം കൂടുതലായിട്ടും കോഴി ഫാമുകളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വയനാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോഴി ഫാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൊഞ്ചുകൃഷി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വയനാട്ടിൽ ഇല്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ മെയിൻ ആയിട്ട് കടൽ ഇല്ലാത്തതുകൊണ്ട് കൊഞ്ചുകൃഷി അങ്ങനെ ഇല്ല പിന്നെ ഡയറി ഫാമിങ് കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം മീൻ വളർത്താനും നല്ല രീതിലുള്ള മീൻ കാര്യങ്ങളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഇപ്പ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ പലതരം ബിസിനസ്സിലേക്ക് ആൾക്കാർ ഇറങ്ങുന്നതുകൊണ്ട് കൂടുതലായിട്ടും അവരുടെ അടുത്ത് പൈസ ഉണ്ടാവും എല്ലാ കാര്യങ്ങളുമുണ്ടാകും ബിസിനസ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഷോപ്പ് ഇട്ടുകഴിഞ്ഞാലും അതിനകത്ത് പലതരം ബിസിനസ്സുകൾ കാണുന്നുണ്ട് ഷോപ്പിൽ പറട്ട് ഡ്രസ്സിൻ്റെ ഷോപ്പ് ആണെങ്കിലും ഇപ്പം നമ്മുടെ ചപ്പൽസിന്റെ ഷോപ്പ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ആണ് ഇപ്പോൾ ഉള്ളവർക്കും എല്ലാവർക്കും ഉള്ളത് കൂടുതലായിട്ടും മുസ്ലിംസ് ആണ് കൂടുതലായിട്ടും ഷോപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഒരു ചായക്കടയിലാണെങ്കിലും അതൊരു ബിസിനസ്സ് പരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്